വിപണിയുടെ റെഡിമേയ്ഡ് വസ്ത്രങ്ങൾ ഒത്തിരി ലഭ്യമാണെങ്കിലും കൈകൊണ്ട് നിർമ്മിച്ച വസ്ത്രങ്ങൾ അത് എങ്ങനെയാണ് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത് എന്നു വച്ചാൽ അതിൻ്റെ ക്വാളിറ്റി തന്നെ ആയിരിക്കാം മെയിൻ കാരണം

അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ് അല്ലേ ഇപ്പം അല്ല ഇപ്പം നമ്മൾ മെഷീൻ മെഷീൻ മെഷീൻ അല്ല എങ്കിൽ എന്താണ് നമ്മൾ കൈ കൊണ്ട് നിർമ്മിച്ചത് അല്ല റെഡിമേയ്ഡ് വസ്ത്രങ്ങൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് അത്ര ഡെഡിക്കേഷൻ കൊടുത്തു ചെയ്തതായിട്ട് നമുക്ക് അങ്ങനെ നോക്കാൻ പറ്റില്ല കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടാൻ കാരണം ക്വാളിറ്റി തന്നെ ആയിരിക്കാം വസ്ത്രത്തിൻ്റെ ക്വാളിറ്റി തന്നെ ആയിരിക്കാം എന്നിരുന്നാലും എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലഘട്ടത്തിൽ എന്താണ് റെഡിമേയ്ഡ് വസ്ത്രങ്ങൾ തന്നെയാണ് കൂടുതലും ആൾക്കാർ ഉപയോഗിക്കുന്നത് മെറ്റീരല് എടുത്തു സ്റ്റിച്ച് ചെയ്യുന്നവർ ഉണ്ട് എന്നിരുന്നാൽ പോലും റെഡിമേയ്ഡ് വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾ തന്നെയാണ് ഉറപ്പായിട്ടും ഇവിടെ കൂടുതലായിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പം നമ്മുടെയൊക്കെ നാട്ടിലാണെങ്കിലും ആളുകൾ ഒത്തിരിയേറെ റെഡിമേയ്ഡ് വസ്ത്രങ്ങളാണ് നമുക്ക് ലഭ്യം ആകുന്നത് റെഡിമേയ്ഡ് വസ്ത്രങ്ങളാണ് കൈ കൊണ്ട് തുന്നിയ അതിൽ കൈ കൊണ്ട് നിർമ്മിച്ച വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നത് വളരെ കുറവാണ് കൂടുതലും എന്നാൽ റെഡിമേയ്ഡ് വസ്ത്രങ്ങൾ തന്നെയാണ് എല്ലാ മനുഷ്യർ എല്ലാവരും തന്നെ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് അങ്ങനെ ആ ഒരു കൈത്തറി സംബന്ധമായിട്ടുള്ള സംഭവങ്ങൾ ഉള്ളവരോ അല്ലെങ്കിൽ അതുമായിട്ട് പരിചയമുള്ളവരോ അല്ലെങ്കിൽ അത് മാത്രം ഉപയോഗിക്കുകയുള്ളൂ എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ആളുകൾ ആണെങ്കിൽ ആളുകൾ മാത്രമേ റെഡിമേയ്ഡിലേക്ക് പോകുള്ളൂ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ അങ്ങനെയാണ് എൻ്റെ ഞാൻ ഇന്നത്തെ ഒരു സാഹചര്യത്തില് നോക്കിയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെയാണ് കൂടുതലും റെഡിമേയ്ഡ് വസ്ത്രങ്ങൾ ആണ് എല്ലാവരും ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് കാരണം പെട്ടെന്ന് ഒരു നമുക്ക് ഒരു ഫങ്ഷൻ ഉണ്ട് പെട്ടെന്ന് ഒരു ആവശ്യം വരുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും മിക്ക ആളും ഇപ്പോഴത്തെ ഒരു ബിസി ലൈഫിൽ അല്ലങ്കിൽ ഒരു ആളുകൾ കൂടുതലും ബിസി ലൈഫിൽ ആളുകൾ കൂടുതലും പെട്ടെന്ന് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കാര്യം നേടുക എന്നുള്ള രീതിയിൽ എന്താണ് റെഡിമേയ്ഡ് വസ്ത്രങ്ങൾ ഉപയോഗിക്കാനാണ് ആൾക്കാരെ പ്രാപ്തരാക്കുന്നത് അല്ലെങ്കിൽ ആൾക്കാരെ പ്രചോദിപ്പിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കൂടുതലും ഈ നെയ്തതും തുന്നിയതും ആയിട്ടുള്ള വസ്ത്രങ്ങൾ ഇഷ്ടപ്പെടുന്നവർ അപ്പം അതിന്റെതായ സ്ഥലത്ത് പോയി ഫോട്ടോ എടുത്ത് വാങ്ങിക്കാറും ഉണ്ട് ഇല്ല എന്നല്ല പക്ഷെ കൂടുതലും റെഡിമേയ്ഡ് വസ്ത്രങ്ങളാണ് ഉപയോഗിക്കുന്നത് എന്നാണ് എനിക്ക് എനിക്ക് പേസണലി തോന്നിയിട്ടുള്ളത് റെഡിമേയ്ഡ് വസ്ത്രങ്ങൾ തന്നെയാണ് അവർ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഭൂരിഭാഗം ആളുകൾ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പം നമ്മൾ ഈ നാട്ടില് ഇതിൻ്റെ ഒരു അവൈലബിലിറ്റി കുറവുള്ളത് കൊണ്ടാണോ അല്ലയോ എന്നുള്ളത് അറിഞ്ഞു കൂടാ എന്നിരുന്നാലും എന്താണ് കൂടുതലും റെഡിമേയ്ഡ് വസ്ത്രങ്ങൾ തന്നെയാണ് ഉപയോഗിക്കാറുള്ളത് അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അല്ലാതെ ഇതിനപ്പുറം നമുക്ക് കൂടുതലായിട്ട് സംസാരിക്കാൻ അറിയില്ല എന്നിരുന്നാലും എൻ്റെ ഒരു അഭിപ്രായം എന്താണ് കൂടുതലും റെഡിമേയ്ഡ് വസ്ത്രങ്ങൾ തന്നെയാണ് ആളുകൾ ഉപയോഗിക്കുന്നത് എന്നുള്ളത് പിന്നെ റെഡിമേയ്ഡ് വസ്ത്രങ്ങളെക്കാളും ക്വാളിറ്റി കൂടുതലും കൂടുതൽ സമയം നമുക്ക് ഉപയോഗിക്കാന് കൂടുതൽ ആളുകൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതും ഒക്കെ കൈ കൊണ്ട് നിർമ്മിച്ച വസ്ത്രങ്ങളാണ് എന്നുള്ളത് നമുക്ക് അംഗീകരിച്ചേ പറ്റൂള്ളൂ എന്നിരുന്നാലും പക്ഷെ നമ്മുടെ ആൾക്കാരുടെ തിരക്ക് മൂലവും സമയക്കുറവ് മൂലവും ഒക്കെ കൂടുതലും ആളുകളും റെഡിമേയ്ഡ് വസ്ത്രങ്ങളിലേക്കാണ് പോകുന്നത് എന്നാണ് തോന്നിയിട്ടുള്ളൂ